നമസ്കാരം ആ ഞാൻ മലപ്പുറത്ത് നിന്നാണ് മലപ്പുറം മേലാറ്റൂര് എന്താണ് നിങ്ങള് കോൺടാക്ട് ചെയ്ത് ഞാനൊരു വീട് വെയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ അപ്പോള് അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങളുടെ പ്ലാനും കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണ് ചെയ്യുക മുറ്റം എന്താണ് ഒരു നാല് സെൻറ്റൊക്കെ ആ നാല് സെൻറ്റിലൊരു ചെറിയൊരു വീടാണ് ഉദ്ദേശിക്കുന്നത്

പിന്നെ അതില് രണ്ട് ബാത്ത്റൂമും പിന്നെ ഒരു രണ്ട് തട്ടായിട്ടാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് ഫ്ലോറായിട്ട് ആ പിന്നെ അതില് മെറ്റീരിയൽസൊക്കെ എങ്ങനെയൊക്കെയാണ് നിങ്ങള് മെറ്റീരിയൽസൊക്കെ ഏതാണ് നല്ലത് നിങ്ങള് സജസ്റ്റ് ചെയ്യുന്നതെന്താണ് ആ അതുതന്നെ മണല് എല്ലാം ആ അങ്ങനത്തെ

ആ പിന്നെ ഇപ്പോള് പുതിയ ഇതൊക്കെ മെറ്റീരിയലൊക്കെ ഇറങ്ങിയിട്ടില്ലെ ഇപ്പോള് എന്താണ് സിമെൻറ്റ് ഒഴിവാക്കിയിട്ട് വേറെന്തൊക്കെയോ അതാണോ നല്ലത് ആ അത് നല്ലതാണോ

ആ പിന്നെ കമ്പിയുടെ കാര്യങ്ങളൊക്കെ കമ്പിയൊക്കെ നല്ല കമ്പിയൊക്കെ ഏതൊക്കെയാണ് ആ നമുക്കിപ്പോള് ഒരു മീഡിയം റേറ്റിലാണ് കമ്പികളും എല്ലാം വേണ്ടത് എന്നാല് പറ്റ ലോ ആകാനും പറ്റില്ല കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബഡ്ജറ്റിലൊതുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്

പിന്നെ ആ നിങ്ങളുടെ സ്ഥലം അങ്ങനെയല്ല നിങ്ങള് എന്താണ് നിങ്ങളുടെ കീഴില്ത്തന്നെ ആൾക്കാരുണ്ടോ നല്ല കമ്പനി ആ ഏതൊക്കെയാണ് ഇപ്പോള് അറിയപ്പെട്ട കമ്പനികള് ഏതെങ്കിലും അറിയപ്പെട്ട ആൾക്കാരുണ്ടോ ആ ആ

ഇവിടെ കാര്യങ്ങളൊക്കെ വന്ന് എന്താണ് നോക്കില്ലേ നിങ്ങള് ആ എന്നാല് ഓക്കെ ആ എന്നാല് ശരി ഓക്കെ താങ്ക് യൂ